ഹലോ ഇത് ഗ്യാസ് ഏജൻസി അല്ലായിരുന്നോ ആ അതെ ഞാൻ കഴിഞ്ഞാഴ്ച അവിടെ വന്നായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ശെരിക്കും അവിടെ വന്നത് പക്ഷേ നിങ്ങളുടെ ആ ഓഫീസിലെ റെസ്പോൺസും കാര്യങ്ങളും പിന്നെ അവിടെ നിങ്ങളുടെ ഈ ഓഫീസ് അവൈലബിലിറ്റിയും അതും മെയിൻ സിറ്റി സെന്ററിൽ നിന്ന് തന്നെ കയറി ചെല്ലുന്നിടത്ത് തന്നെയാണ് അവിടെ ബ്ലോക്കും കൂടാതെ പാർക്കിങ്ങും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ സഹകരണങ്ങളും പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പം ഒരു ഗ്യാസിൻ്റെ കണക്ഷൻ എടുക്കാൻ വന്നതാണെങ്കിലും എനിക്ക് ഗ്യാസ് കണക്ഷനും ഒരു അവിടുന്നൊരു ഗ്യാസ് സ്റ്റവും അവിടുന്ന് തികച്ചും ഫ്രീ ആയിട്ടെനിക്ക് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് കിട്ടി എനിക്ക് അങ്ങനെ അതിലെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് എനിക്കത് അത് എനിക്കത് ഇഷ്ടമായി എനിക്കത് ഞാൻ ഹാപ്പിയാണതില് അല്ലേ പിന്നെ റേയ്റ്റെല്ലാം കൂടെ നോക്കിയപ്പോൾ തന്നെ വളരെ കുറച്ചിട്ടാണ് എനിക്ക് ആ അഫോർഡബിൾ പ്രൈസിനാണ് എനിക്കത് തന്നത് അതുപോലെ തന്നെ അത് നല്ലൊരു ഇതാണ് നിങ്ങളുടെ കമ്പനി എനിക്ക് ശരിക്കും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഞാൻ ഉറപ്പായിട്ടും തരും അതുപോലാണ് നിങ്ങള് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാല് കാച്ചലിപ്പം വരും അപ്പം അവനു ഇനി ഗ്യാസ് കണക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പം അപ്പോൾ ഞാൻ അവനോട് ഇത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഈ കമ്പനിയുടെ ഈ ഗ്യാസ് കണക്ഷൻ എടുക്കാൻ പിന്നേ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ കാരണം നിങ്ങളൾടെ കസ്റ്റമർ റിവ്യൂ നിങ്ങളുടെ ആ ആ ഒരു ഡെഡിക്കേഷൻ ആ ഒരു ഒത്തൊരുമയെല്ലാം എനിക്കിഷ്ടപ്പെട്ടു അതുപോലെ നിങ്ങള് ഭയങ്കര താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെയാണ് നിങ്ങൾ എനിക്ക് ഈ ഗ്യാസ് കണക്ഷെൻ എടുത്ത് തന്നത്